ഒത്തിരി പുസ്തകങ്ങള് നമ്മള് വായിച്ചിട്ടുണ്ട് ചിരിപ്പിക്കുന്നത് അതില് കൂടുതലും നമുക്ക് ചിരിക്കാന് പറ്റുന്ന ബാലരമ തന്നെയായിരിക്കും ബാലരമ ബാലമംഗളം എന്നുള്ള പുസ്തകങ്ങളൊക്കെ ആയിരിക്കും അതിന്റകത്തെ ശരിക്കും പറഞ്ഞാല് ഓരോരുത്തര് ചെയ്യുന്ന ഓരോ പൊട്ടത്തരങ്ങള് തന്നെ ആയിരിക്കും നമുക്ക് ഒത്തിരി ചിരിക്കാന് സാധിക്കുന്നത് ഓരോരുത്തര്ക്ക് പറ്റുന്ന അമളികൾ അതിലാണ് നമ്മള് ഒത്തിരി ചിരി ഒത്തിരി നമ്മള് ചിരിച്ചു പോകുന്നത് അവര് ചെയ്യുന്ന ശരിയാണെന്നും പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങള് പൊട്ടത്തരങ്ങളാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അന്നേരം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടാകുന്ന